മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാം അതിപ്പം ഞങ്ങള് പിന്നെ ഇവിടെ വീട്ടില് തൊട്ടടുത്ത വീട്ടിൽ തന്നെ ഒരു ചേച്ചി വർഷങ്ങളായി ചെറുപ്പം കാലം തൊട്ടേ മാനസിക പ്രശ്നമായിട്ടിങ്ങനെ നടക്കുന്നൊരു വ്യക്തിയാണ് ഒരു പാട് മരുന്നുകളും മാനസികാരോഗ്യ കേന്ദ്രങ്ങളില് കൊണ്ട് താമസിക്കുകയും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ മരുന്നുകളുടെ ഓരോ വ്യത്യാസത്തില് കുറച്ച് കാലം ഫ്രീ ആയിട്ട് വരും അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും അവര് ഇതിലേക്ക് തന്നെ പോകും അതുപോലെ തന്നെ ഒന്ന് രണ്ട് പേരും വിധവകളായിട്ടുള്ള വ്യക്തികളുണ്ട് ഒരു തരം വീടുകളിങ്ങനെ അടച്ച് പൂട്ടി കിടന്നിട്ട് ഡിപ്രഷനിലേക്ക് പോയ് കൊണ്ടിരിക്കുന്നൊരു സിറ്റുവേഷനിലൂടെയാണിപ്പം കടന്ന് പോയ് കൊണ്ടിരിക്കുന്നത് അവർക്ക് ഈ പറയും പോലെ നമ്മളുടെ സമൂഹത്തില് വിധവകളെന്ന് പറഞ്ഞാലെപ്പഴും പുറം ലോകം കാണാതെ അടഞ്ഞിരിക്കണം എന്നൊരു കഴ്ചപ്പാടില് ഉള്ളൊരു സമൂഹമാണ് ചുറ്റും അപ്പോൾ ഇതിനോടനുബന്ധിച്ചെല്ലാം വീട്ടിനുള്ളിലടച്ച് പൂട്ടിയിരിക്കുന്ന ഒരുപാട് വ്യക്തികള് ഇങ്ങനത്തെ ഈ പറഞ്ഞത് പോലെ ഡിപ്രഷൻ്റെ ഡിപ്രഷനിലൂടെ കടന്ന് പോവുകയാണ് അതുപോലെ തന്നെ ഇവിടെ തന്നെ കുടുംബങ്ങളും കൂട്ടിനും ആരും നോക്കാനില്ലാതെ റോഡുകളിൽ അലഞ്ഞ് നടക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഇവരെ നമ്മൾ കൊണ്ടൊക്കെ അവര് ഹോസ്പിറ്റലിൽ എത്തിക്കാനും ചികിത്സക്ക് സ്വയം തയ്യാറാവുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെ നിന്നും ആരും നോക്കാനില്ലാണ്ട് നമ്മുടെ റോഡുകളിൽ ഒരുപാട് പേരിങ്ങനെ കാണുന്നുണ്ട് ഇവർക്കൊക്കെ ഒരു ബോധവൽക്കരണം കൊടുക്കാനായിട്ട് നമ്മള് ശ്രമിക്കാറുണ്ട് നമ്മള് ഈ വിഷയങ്ങളിൽ വിഷയങ്ങൾക്കൊക്കെ കുറിച്ചു ഇതൊരു പൊതുവായൊരിത് എല്ലാവരും നല്ല ഇതിനെക്കുറിച്ചന്നെയാണ് അഭിപ്രായത്തോട് കൂടി തന്നെ ഓരോ വ്യക്തികളെയും ഹോസ്പിറ്റലുകളിലെത്തിക്കാനും മാനസിക പ്രശ്നമെന്ന് പറഞ്ഞാല് എല്ലാ അസുഖങ്ങളെയും പോലെ പെട്ടെന്നൊരു മെഡിസിൻ കൊടുത്ത് മാറ്റാവുന്ന ഒര് ഇതൊന്നുവല്ല നല്ല ബോധവൽക്കരണത്തിലൂടെ സമൂഹത്തിന് കുറച്ച് പറഞ്ഞ് മനസിലാക്കാനും കുറെ കൗൺസിലിംഗിലൂടേയും ഒക്കെ നിലനിർത്തി അവരെ മുന്നോട്ട് നയിച്ച് കൊണ്ട് വരണ്ട ഒരു കേസാണുള്ളത് അപ്പോൾ ഒരുപാട് എന്ത് അറിവുകള് ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് നേടിയിട്ടുണ്ട്